യുവതലമുറ അവർക്കനിയോജ്യമായ ജീവിതപങ്കാളിയെ കിട്ടാൻ ബുദ്ധുമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ട് ഈ പട്ടണങ്ങളിൽ താമസിക്കുന്നതുകൊണ്ട് അല്ല പട്ടണങ്ങളിൽ താമസിക്കുന്നോണ്ട് ജീവിതപങ്കാളിയെ കിട്ടാൻ താമ് യുവതലമുറക്ക് സാധിക്കുന്നെ ഇല്ലെന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ അതായത് കുട്ടനാടുപോലെയുള്ള പ്രദേശങ്ങളിൽ ജനവിഭാഗങ്ങൾക്ക് അത് ഒരു ചോദ്യചിഹ്നമായിത്തന്നെ കിടക്കുന്നു അതായത് പട്ടണങ്ങളിലുള്ള ആളുകൾ കുട്ടനാടൻ പ്രദേശങ്ങൾ അല്ലേ വെള്ളം ഉള്ള പ്രദേശങ്ങളിലക്ക പോയി വിവാഹം കഴിക്കാനോ താല്പര്യപെടുന്നില്ല അതായത് കൂടുതലും വെള്ളത്തിൻ്റെ ഒരു സാഹചര്യം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം യാത്ര അതുപോലെന്നെ ഡെവലപ്മെൻറ്റ് കുറവ് ഇതൊക്കെ കാരണം അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാൻ പട്ടണങ്ങളിലുള്ള യുവജനങ്ങൾ തയ്യാറെടുക്കുന്നില്ലാ ഇവിടെ നിന്ന് അങ്ങോട്ട് വിടാനും അവിടെ നിന്ന് വിവാഹം ചെയ്യാനും ചില മടിക്കുന്നവരുടെ എന്ന് വെച്ചാൽ വൈഫിന് ഹൗസ് അവിടെയാണ് ഓ അവിടെ വെള്ളം കയറും എന്ന് പറയുന്ന ഒരു സാഹചര്യം ചിലർക്ക് കണുന്നുണ്ട് പക്ഷേങ്കിൽ അതുകൊണ്ട് പട്ടണങ്ങളിൽ ജീവിക്കുവാൻ ത താല്പര്യമില്ലാഴിക കാണിക്കോ ഇവിടെ ആവശ്യം ഇല്ല പട്ടണങ്ങളിൽ ജീവിക്കുന്ന യുവജനങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സാധിക്കും അതിന് ബുദ്ധുമുട്ടുകളൊന്നും തന്നെ ഇല്ല ആ പട്ടണങ്ങളിൽന്ന്ന്നെ ജനങ്ങൾ ആളുകളെ തിരഞ്ഞെടുക്കാൻ അവർക്ക് സാധിക്കും പക്ഷേ ഗ്രാമപ്രേദേശങ്ങളായ ഈ കുട്ടനാട് പോലുള്ള ഗ്രാമപ്രേദേശങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാനുള്ള ജനങ്ങൾക്കാണ് ഇത് കൂടുതലേറെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്